ഇപ്പോൾ കോഴിക്കോട് ജില്ല നമുക്കിപ്പോൾ പറയാണെങ്കിൽ ഇപ്പോൾ ആരോഗ്യ സംപ്രക്ഷണത്തിൽ ആയിക്കോട്ടെ സാമ്യൂഹത്തില സാമൂഹ്യ പിൻതുണ അന്തസ്സ് എന്നിവയിലൊക്കെ നമുക്ക് കൂടുതലയിട്ട് നമുക്കങ്ങനെ പറയാണങ്കിൽ തന്നെ ഇപ്പം കോഴിക്കോട് ജില്ലയില് ജനങ്ങള് കൂടുതലായിട്ടും നേരിടുന്ന പ്രശ്നങ്ങള് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഇപ്പോൾ ഇപ്പൊൾ വാർദ്ധക്യം ആയി കഴിഞ്ഞാൽ പെൻഷനും കാര്യങ്ങളക്കെ കിട്ടുന്നതിന് ഇപ്പോൾ എന്താ പറയുക ഓൾമോസ്റ്റ് എല്ലാർക്കും തന്നെ പെൻഷനും കാര്യങ്ങളക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക കൂടുതൽ ആൾക്കാർക്കും അതിനെ പറ്റി വലിയ കാര്യങ്ങളായിട്ട് അറിവൊന്നും വരുന്നില്ല പിന്നിപ്പഴാണ് കുറെ ഒക്കെ മനസ്സിലാക്കീന്ന് പറഞ്ഞ ഇപ്പം കോഴിക്കോട്ന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേർക്ക് പെൻഷനും കാര്യങ്ങളക്കെ ലഭിക്കാണ്ട് പോകുന്നുണ്ട് പിന്നെ എന്താ പറയുക അസുഖങ്ങളക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ എന്താ പറയുക ടെസ്റ്റ് ചെയ്യാനൊക്കെ ആൾക്കാർക്ക് ബെ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് യാത്ര ചെയ്യാനും കാര്യങ്ങളക്കെ ഭയങ്കര ബുദ്ധിമുട്ടായായതു കൊണ്ട് തന്നെ വീട്ടീന്ന് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളക്കെ നേരിടുന്നതു കൊണ്ടും കുറെ ആൾക്കാർക്ക് അസുഖങ്ങളക്കെ വരുന്നുണ്ട് പിന്നെ അവരെയൊക്കെ പിൻതുണക്കാനൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ കോഴിക്കോട് ജില്ലയില് ഇപ്പോൾ ഒരുപാട് മൾട്ടി ബേയ്സ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും ഉണ്ട് എന്നാലും എന്താ പറയുക ക്യാഷിൻറ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെ അവർക്ക് എന്താ പറയുക അങ്ങനെ പോകാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ എന്താ പറയുക മെഡിക്കൽ കോളേജും കാര്യങ്ങളക്കെ ഉള്ളതുകൊണ്ടും തന്നെ അവർക്ക് എന്താ പറയുക ഇപ്പം അസുഖങ്ങളും കാര്യങ്ങളൊക്കെ കുറവാണ് പിന്നെ സമൂഹത്തില് എന്താ പറയുക ഇപ്പോൾ എല്ലാം രോഗങ്ങളും കാര്യങ്ങളക്കെ കൂടി വരുന്നകൊണ്ട് അതുകൊണ്ട് തന്നെ വയോജനങ്ങള് ഭയങ്കര ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്